എൻ്റെ ആദ്യത്തെ പ്രൊഡക്റ്റെന്നു പറയണത് ഒരു മൊബൈൽ ഫോണാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചത് ഏത് ഫോണെന്നു വെച്ചാൽ റെഡ്മിയുടെ നോട്ട് ഫോറാണ് ഞാൻ ആദ്യമായി വാങ്ങിച്ച പ്രോഡക്റ്റ് ഈ ഫോണിന് ഒരുപാട് പോസിറ്റീവ് ഗുണങ്ങളുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് ഇതെന്ന് വെച്ചാൽ ഞാൻ കൊടുത്ത പൈസക്ക് ഒരു നല്ലൊരു മുതൽ കൂട്ട് തന്നെയായിരുന്നു ഈ മൊബൈൽ ഫോൺ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങള് എന്തൊക്കെയാണെന്നു വെച്ചാൽ ഒന്ന് ഇതിൻ്റെ പ്രൊസസ്സിംഗ് കാരണം പ്രൊസസ്സറ് ഭയങ്കര സ്പീഡുള്ള ഒരു പ്രൊസസ്സറ് തന്നെയാണ് ഈ മൊബൈൽ ഫോണിൻ്റെ ഇതിനു ഫോർ ജി ബി റാമും സിക്സ്റ്റി ഫോർ ജി ബി ഇന്റേർണൽ സ്റ്റോറേജുമാണ് ഉണ്ടായിരുന്നത് ഇത് ഞാൻ എടുത്തിട്ട് ഒരു ആറു വർഷം തന്നെ ആയിട്ടുണ്ട് എന്നിട്ടും ഇതിനു വലിയ തരത്തിലുള്ള കംപ്ലയിൻ്റുകളോ പ്രശ്നങ്ങളോ വന്നിട്ടില്ല പിന്നെ ഇതിൻ്റെ അടുത്ത ഗുണം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ചാർജിങ്ങാണ് ഒരുപാട് സമയം ചാർജിങ്ങ് ഇത് നിലനിൽക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് നാലായിരം എം എ എച്ചാണ് അതുകൊണ്ടു തന്നെ ചാർജിങ്ങ് ഒരുപാട് സമയം നിൽക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ ക്യാമറ ക്യാമറ നല്ലൊരു ക്യാമറയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് നല്ല രീതിലുള്ള ഫോട്ടോസ് എടുക്കാൻ ഇതില് പറ്റുന്നുണ്ട് ഈ ഫോണില് അതുപോലെ ഇതിൻ്റെ സ്പീക്കറ് സ്പീക്കറും വളരെ മികച്ചതാണ് സൗണ്ട് ക്വാളിറ്റി മികച്ചതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ടച്ച് സ്ക്രീന് ഇതിൻ്റെ സ്ക്രീനും മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ച വെച്ചിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ അടുത്ത ഒരു ഗുണമെന്നു പറയുന്നത്

മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ്